ഫോട്ടോഗ്രാഫി ടെക്നീക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ ടെക്നിക്സുകളൊന്നും നോക്കില്ല ഒരു ഫ്രെയിം സെറ്റ് ഒരു ഫ്രെയിം നല്ലൊരു ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളില് എങ്ങനെ ആൾക്കാരെ നമ്മൾ പ്ലേസേയ്യുന്നു അതാണ് മെയിനായിട്ടുള്ളൊരു ടെക്നിക്ക് ആ ടെക്നിക്കിൽ കളർ ഗ്രേഡ്സ് ലൈറ്റിങ് ഇതിനനുസരിച്ച് ഫോട്ടോഗ്രാഫിയുടെ എഫിഷ്യൻസി എന്നു പറയുന്നത് അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ടെക്നിക്ക് ഗ്രെയ്ന്സ് ഗ്രെയ്ന്സ് എങ്ങനെ എന്തേലൊക്കെ ഉണ്ടോ അത് അതു നോക്കണം പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റെയ്യുന്നത് പിന്നെ കളർ അഡ്ജസ്റ്റെയ്യുന്നത് അതുപോലെ അതുപോലെ തന്നെ ലൈറ്റ് കളര് ഫ്രെയിം സെറ്റ് ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഒരു ടെക്നിക്സ് ടെക്നിക്സിന് ആവശ്യമുള്ളത് ഈ ടെക്നിക്സ് ഉപയോഗിക്കുമ്പോഴാണ് ഒരു ഫോട്ടോഗ്രാഫിയുടെ മെയിനായിട്ടുള്ളൊരു മെയിനായിട്ട് നമുക്ക് അത് ക്രിയേറ്റിവിറ്റിയിലൂടെ നമുക്കത് പകർത്തിെയെടുക്കാം ഈ ക്രിയേറ്റിവിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ടെക്നീക്സ് വളരെയധികം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഈ ടെക്നിക്സിൻ്റെയകത്ത് ഒരു ഫോട്ടോഗ്രാഫറിലെ മെയിനായിട്ടുള്ള ആവശ്യമെന്നു പറയുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഫ്രെയിം സെറ്റ് കളര് ലൈറ്റിങ് ഇതെല്ലാമാണ് നമുക്ക് ആവശ്യം വരുന്നത് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ മെയിനായിട്ടുള്ളൊരു രീതിയിൽ ഫോട്ടോഗ്രാഫി സ്കില് ഫോട്ടോഗ്രാഫറിന് ഒരു ചിത്രം എങ്ങനെ നമുക്ക് മനോഹരമായി ആ ഫ്രെയിം സെറ്റിനകത്തു നമുക്കു പകർത്തിയെടുക്കാം അതാണ് ഫോട്ടോഗ്രാഫറിൻ്റെ മെയിനായിയിട്ടുള്ള സ്കില് വരുന്നത് ഫോട്ടോഗ്രാഫി എന്നു പറയുമ്പോഴത്തേക്ക് ഏറ്റവും നമുക്ക് ഉചിതമായ രീതിയിലൊരു ഫോട്ടോ നമ്മൾ എങ്ങനെ കണ്ടക്റ്റെയുന്നു അതൊക്കെയാണ് നമുക്കൊരു ഫോട്ടോഗ്രാഫി കൊണ്ടു നമ്മൾ ഉദ്ദേശിക്കുന്നത് ശില്പങ്ങളുടെ ഫോട്ടോഗ്രാഫി ഞാൻ ഇതുവരെയായിട്ട് പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വല്യതായ ധാരണ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ടു ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ശില്പ എങ്ങനെ നമുക്കിത് കൃത്യമായി ധാരണ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല അതുകൊണ്ടുതന്നെ ഈ ഫോട്ടോഗ്രാഫി സാങ്കേതിക വിദ്യ നമുക്ക് ഏറ്റവും കൂടുതല് നമുക്ക് പങ്കെടുക്കാം